ചെയ്യാറുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളാണ് എങ്കിൽ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അത് കൂടുതൽ ജനങ്ങളുടെ ആഴങ്ങളിൽ ഇറങ്ങി ചെല്ലുവാനും വരും തലമുറകൾക്കും അല്ലെങ്കിൽ ഇനിയുള്ള തലമുറകൾക്കോ കൂടുതൽ വഷളാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടി നല്ല ഇനം പ്രോഗ്രാമുകൾ വരെ എഡിറ്റ് ചെയ്ത് അത് സമൂഹ മധ്യത്തിലേക്ക് അയക്കാനായിട്ട് ഏറെ ഇതിലൂടെ ഒരു പരിധിവരെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അരാജകത്വത്തെ ഒഴിവാക്കുവാനും സാധിക്കും എന്നതാണ് അതിനെക്കൊണ്ട് ലക്ഷ്യമാക്കുന്നത് പിന്നീട് ഇതുപയോഗിച്ച് മറ്റുള്ളവർ ദുർവിനിയോഗം ചെയ്യുകയാണ് എങ്കിൽ അത് കൂടുതൽ വഷളാകുകയെ ഉള്ളൂ അത് ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ സാമൂഹ്യ നന്മ കൈവരിക്കാൻ വേണ്ടി ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാം പോസ്റ്റുകൾ സാധാരണ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്